ഇപ്പോൾ ചെറുകിട ചെറുകിട സാങ്കേ ബിസിനസ്സുകളില്ലേ അത് ഭയങ്കരധികം നല്ല രീതിയിൽ വളർച്ചയിൽ സാങ്കേതികം സഹായിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ബിസിനസ്സുകളെന്നു പറഞ്ഞാൽ മെയിനായിട്ടിപ്പോൾ ഓൺലൈനിലാണല്ലോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിൽക്കണേ അപ്പോൾ കുഞ്ഞ് കടകളായാൽ പോലും ഓൺലൈനിൽ പെട്ടെന്ന് വിൽക്കുമ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അഫോർഡബിളായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ഈ സാങ്കേതിക വിദ്യയുടെ പരിപാടി അതു കൊണ്ട് നല്ല ഒരു സംഭവമാണ് ഈ ചെറുകിട ബിസിനസ്സുകൾ സാങ്കേതിക വിദ്യയിൽ സാങ്കേതിക വിദ്യ കൊണ്ടായിരിക്കും ചെറുകിട പ്രശ്നങ്ങളെ വളർച്ചയിൽ സഹായിച്ചിട്ടുണ്ട് അതു പോലെ എനിക്കിപ്പോഴൊരു ബിസിനസ്സുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ ബിസിനത്തെ എങ്ങനെ ബാധിച്ചെന്നു പറയുകയാണെങ്കിൽ എനിക്കിപ്പൊരു കോഴിക്കട ഉണ്ടെങ്കിൽ ഇപ്പം ആ കോഴിക്കടയിലോട്ട് സാധനങ്ങൾ വിറ്റു പോകാനായിട്ട് ഞാൻ കാണിക്കുന്ന കുറേ പരിപാടിയെന്നു പറഞ്ഞാൽ ഒന്ന് ഇപ്പം അടുത്തുള്ള ഇപ്പം ഗൂഗിൾ മാപ്പായാൽ പോലും ഒരു കടയുടെ ഫുൾ രജിസ്റ്റർ ചെയ്യുന്നു അല്ലേ രജിസ്ട്രേഷൻ ചെയ്യുന്നു രജിസ്ട്രേഷൻ കാര്യങ്ങൾ പഞ്ചായത്തിൽ ചെയ്യുന്നു അതു പോലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ പിന്നെയുള്ളതെന്നു പറഞ്ഞാൽ ഓ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സൈറ്റുണ്ടാക്കി വെക്കുന്നു അല്ലെങ്കിൽ ഫ്ലിപ്പ് പിന്നെ അതു പോലെ ഈ കോഴിയുടെ പിന്നെയുള്ള ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പരിപാടികൾ ചെയ്യുന്നു പിന്നെ പിന്നെന്നാ കോഴി പിന്നെ കോഴിയുടെ വില കുറക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ പല രീതിയിൽ ബിസിനസ്സ് വളർത്താനായിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്ന ബിസിനസ്സ് ചെയ്യാന് പോയ സ്ഥലത്ത് നല്ല സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിൽ തന്നെ അതായത് കൂടുതൽ ആൾക്കാർ മേടിക്കണം എന്നാലല്ലെ സാധനം നമുക്ക് പ്രോഫിറ്റ് ചെയ്യും പ്രോഫിറ്റ് കിട്ടാൻ കിട്ടാനുള്ള നമ്മൾ ചെയ്യുന്നേ അപ്പോൾ സ്ഥലങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ട് അതായത് കൂടുതൽ സിറ്റിയിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ന്നെ ഇപ്പം ഒരു കൂടുതലും ഡിജിറ്റൽ സ്ഥലങ്ങളുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാറ്റിയിട്ട് നമ്മൾ സാധനം കൊടുക്കുക വിറ്റ് പോകുന്ന രീതിയിലുള്ള സ്ഥലത്ത് പോയിട്ട് പരിപാടി ചെയ്യുന്നു അതായത് ഇപ്പം റൂറ റൂറലല്ല ഇപ്പം അർബൻ ഏരിയയിലാണേൽ ഒരു വലിയൊരു ഷോപ്പ് നടത്തുന്നു റൂറൽ ഏരിയ ആണേൽ കുഞ്ഞ് ഷോപ്പായിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം അല്ല ഒരു ഒരെണ്ണം ചെയ്തു റൂറൽ ഏരിയയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ ചെയ്യാം അങ്ങനെയുള്ള ബിസിനസ്സ് പ്ലാനും മൈൻഡൊക്കെ വെച്ചിട്ട് പരിപാടി ചെയ്യുന്നു അതു പോലെ വിലയുടെ കാര്യങ്ങളായാലും അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതിനെല്ലാം ഒരു എന്ത് പറയുന്നേ ബാക്ക് അപ്പായിട്ട് അല്ല പുറകിലായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ചെയ്യുന്ന പരിപാടിയെന്നു വെച്ചാൽ നമ്മുടെ ഇത് സാങ്കേതിക വിദ്യയിൽ അതായത് കൂടുതൽ സാ ആൾക്കാരെ വെക്കാനായിട്ട് അല്ലേ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റര്ടെയിന്മെന്റ് പരിപാടിയൊക്കെ ചെയ്ത് അല്ലേ അതിനെക്കുറിച്ചൊരു പ്രൊമോഷൻ വീഡിയോയൊക്കെ ഇറക്കി സംഭവം അങ്ങോട്ട് സെറ്റാക്കുന്നു അങ്ങനൊരു പരിപാടിയാണ് നമ്മൾ ബിസിനസ്സങ്ങനത്തെ ഒരു ചെറുകിട ബിസിനസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ചെയ്യാമെന്നു വെച്ചാൽ ബിസിനസ്സ് വികസനത്തിനു വേണ്ടി ചെറുകിട ബിസിനസ്സുകളെ വളര്ച്ചയിൽ പിന്നെന്താ ചെയ്യാമെന്നു വെച്ചാൽ നമുക്ക് വേണേൽ ചെ ഒരു എന്താ പറയുന്നേ വേറെ ഇതിപ്പോൾ കോഴിക്കടയായാലും അതിൻ്റെ അസോസിയേറ്റ് ചെയ്ത ഒരു ഫാമുമായിട്ട് കുറച്ചു കൂടി ലിങ്ക് ചെയ്തിട്ട് ചെയ്യാൻ അതായത് ഇപ്പ ഈ വേസ്റ്റ് മാനേജ്മെന്റായാലും വേസ്റ്റ് എടുക്കുന്ന ഒരോ ആൾക്ക ആൾക്കാരുമായിട്ട് ലിങ്ക് ചെയ്യുന്നു അങ്ങനെ പക്കായിട്ട് എന്താണ് പക്ക ഇങ്ങനൊരു മ്യൂച്ചലായിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ആ ആ രീതിയിൽ നമുക്കീ ഫുൾ ബിസിനസ്സ് കൺണ്ട്രോൾ ചെയ്ത് കൊണ്ടു പോകാന് പറ്റും അതു പോലെ ഗവൺമെൻ്റിൽ നിന്ന് പരമാവധി എയ്ഡും കാര്യങ്ങളും അല്ലെങ്കിൽ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ്സിനു വേണ്ടി ചെറിയൊരു ബിസിനസ്സിനു വേണ്ടി ലഭിക്കാനായിട്ട് വേണ്ട സങ്കേതിക വിദ്യയിൽ കൂടി ഇന്ന് അതു പോലെ ഓൺലൈനിൽ കൂടി അല്ലേ മാധ്യമങ്ങളിലൂടെ രജിസ്റ്ററേയോ അങ്ങനെ പല രീതിയിൽ കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ ഗവൺമെന്റുമായിട്ട് ഒപി എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ പഞ്ചായത്തായാൽ പോലും പഞ്ചായത്തിൽ ചെന്ന് ഒരപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇത് ഗവണ്മെന്റിന്റവിടെ എത്തിക്കുന്നേ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുകയല്ലല്ലോ അപേക്ഷ വെച്ച് കൊടുക്കുകയല്ലേ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെ വേണമെങ്കിൽ അങ്ങനെ ആയാലും പക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും